നമ്മൾ ചിത്രം വരച്ചാൽ കുറെ പേര് വിമർശനം പറയാൻ വരും പക്ഷെ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത് എന്നാണ് എന്റെ ഒരു നിഗമനം നമ്മൾ നമ്മൾ ഒരാർട്ടിസ്റ്റിന്റെ വിവരമെന്താണെന്ന് കരുതിയാൽ നമ്മൾ നമ്മളെതന്നെ ആശ്വസിപ്പിക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരാർട്ടിസ്റ്റ് സ്വന്തം ചിത്രത്തിനെ നോക്കി നമ്മൾ ഇഷ്ടപെടുന്നതാണ് ഒരാർട്ടിസ്റ്റിന്റെ വിജയമെന്ന് ഞാൻ വിശ്വസിക്കുന്നത് മറ്റുള്ളവര് അതിനെ ശരിക്കും അതൊരു ചിത്രമെന്ന് വെറുമൊരു ചിത്രമെന്ന് നോക്കിയാണെങ്കിൽ ഒര് ആർട്ടിസ്റ്റിന് അത് വന്നിട്ട് ഒര് ജീവിതമാണെന്നാണ് കരുതപ്പെടുന്നത് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ അതവർ സ്വീകരിക്കണം എന്ന് സ്വീകരിക്കണം എന്ന് ഉപരി അവർ പറയുന്ന നല്ലവശം മാത്രം എടുക്കുക എന്നാണ് എന്റെ ഒരഭിപ്രായത്തിൽ അവർ എന്തെങ്കിലും ഒര് കറക്ഷൻ എന്തെങ്കിലുമൊര് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയാണ് അവർ പറയാനുദ്ദേശിച്ചിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് വേണമെങ്കിൽ അതെടുക്കാം പക്ഷേ അത് നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അതു നമ്മളുടെ ഡ്രോയിംഗിനും പെയിന്റിങ്ങിനൊക്കെ അതൊരു നെഗറ്റീവ് എഫക്ട് വരുമെന്നാണ് പറയാനുള്ളത് പിന്നെ നല്ല വശം മാത്രം സ്വീകരിക്കുക ചീത്ത വശം അങ്ങനെ ഒഴിവാക്കുക എന്നതാണ് എനിക്ക് വിമർശനം തരുന്ന ആളുകളോട് പറയാനുള്ളത് പിന്നെ ഇത് നിങ്ങളുടെ രചന മെച്ചപ്പെടുത്താൻ നിങ്ങളുടെ ചിത്രരചന മെച്ചപ്പെടുത്താനുള്ള ഒര് സാഹചര്യമാണ് അവർ നൽകുന്നതെങ്കിൽ അത് തീർച്ചയായും സ്വീകരിക്കണമെന്നും നെഗറ്റിവായിട്ട് വിമർശിക്കുന്ന ആൾക്കാരെ ഒഴിവാക്കണമെന്നും അവരെ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ കാര്യം നിങ്ങൾ ചെയ്യണമെന്നുമാണ് ഞാൻ പറഞ്ഞു വരുന്നത്